ഞാൻ ഒരു ക്യാമ്പിനെ കുറിച്ചു അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ കുറിച്ചു ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓക്കെ അപ്പം എനിക്ക് ഒന്ന് രെജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഷോൾഡറിന് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ ഷോൾഡറ് ഇങ്ങനെ ഇറങ്ങി പോവുന്ന പോലെ ഒരു പ്രശ്നം ആ ഇങ്ങനെ എനിക്ക് ഇപ്പോൾ കൈ ഇങ്ങനെ എന്തെങ്കിലും വച്ചു എറിയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അത് ഒന്ന് അത് ഒന്നു കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിനെ കുറിച്ചു എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതും ആധാറിൻ്റെ എന്തൊക്കൊയോ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ ഫ്രണ്ട് അപ്പം അതെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്പറ് നമ്പറ് ഒന്നു രജിസ്റ്റർ ചെയ്യണം ഓക്കെ തൊണ്ണൂറ്റി ആറ് മുപ്പത് നാൽപ്പത്തി അഞ്ച് ഇരുപത് അറുപത് മുപ്പത്തി നാല് ആ ഓക്കെ അപ്പോൾ അതിനെന്തൊക്കെയോ രജിസ്റ്റർ ചെയ്യനായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ അയിരുന്നു എൻ്റെ ആധാർ നമ്പറ് വേണോ ഓക്കെ ഒരു മിൻറ്റ് ഞാൻ ഒന്ന് ആധാർ എടുക്കട്ടെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ എന്നാൽ ഞാൻ അത് ആക്കുമ്പം ഇതായിക്കോളാം ഓക്കെ ഓക്കെ താങ്ക് യു